ഞാനീ ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ ഒരു സ്ഥിരം ഇപ് ഉപഭോക്താവാണ് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു യാത്രക്കായിട്ടൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാണെങ്കില് എനിക്കെന്തെങ്കിലും കിഴിവുകള് അല്ലെങ്കില് ഡിസ്കൗണ്ടുകള് കിട്ടാൻ സാധ്യതയുണ്ടോ എന്തെങ്കിലും പ്രൊമോ കോഡ് വഴിയോ മറ്റോ കിഴിവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടോന്ന് അറിയാനായിട്ടായിരുന്നു അപ്പം നിങ്ങൾക്കെന്തെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കില് ഒന്ന് അറിയിക്കൂ